ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ പൂർണമായിട്ടും വൈദ്യുതി നല്ല രീതിയില് ഇതായിട്ടുണ്ട് ഉപജീവന മാർഗമായിട്ട് മാറിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എല്ലാ സാധനങ്ങളും ഇപ്പം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മളിപ്പം ഒരു രാത്രി ഇരുട്ടാവുന്ന ഒരു ടൈമിൽ തന്നെ നമ്മള് കൂടുതലായിട്ടും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടും നമുക്കിപ്പം കാഴ്ച എന്താ പറയുക ഇപ്പം ഇരുട്ടത്ത് കാഴ്ച കണ്ണ് കാണില്ല അപ്പം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സ്ഥലങ്ങള് പോകാൻ പറ്റുക ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം കറൻറ്റ് പോയി കഴിഞ്ഞാൽ നമ്മള് ആ ഒരു പണികളും കാര്യങ്ങളും ഒന്നും നടക്കില്ല നമ്മക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം ഒരു എന്താ പറയുക പുതപ്പ് ഒന്ന് എടുക്കണമെങ്കിൽ തന്നെ അത് കാണണമെങ്കിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പം വൈദ്യുതി നമുക്ക് ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മുടെ നമ്മള് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണ് ചാർജ് ചെയ്യണമെങ്കില് നമുക്ക് എന്തായാലും വൈദ്യുതിയും കാര്യങ്ങളും ഒക്കെ എന്തായാലും ആവശ്യമുള്ള ഒരു ഘടകമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അടുക്കളയിൽ ഉപയോഗിക്കുന്ന എ ടു ഇസഡ് സാധനങ്ങള് ഇപ്പം കറൻറ്റ് അടുപ്പ് പിന്നെ നമ്മളുടെ മിക്സി നമ്മള് എന്തെങ്കിലും ഇപ്പം കെറ്റില് അങ്ങനെത്തെ സാധനങ്ങള് എല്ലാം എല്ലാ സാധനങ്ങളും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നത് ആണ് അപ്പം വൈദ്യുതി ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ അടുക്കളയിലെ കാര്യങ്ങള് നമ്മളുടെ നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ മൊത്തം പരിപാടികളും എല്ലാം താളം തെറ്റിപോകുന്ന ആണ്